ഞാന് ഒരു സാരി വാങ്ങിയിരുന്നു ഇനിക്കായിച്ഛാണെങ്കില് ആ സാരി തീരെ ഉടുക്കാനറിയില്ല അങ്ങനെ ഞാനെപ്പോഴും സാരി ചുറ്റിയുടുക്കേല് പോകാണെങ്കിലൊക്കെ ബിന്ദു ചേച്ചിയുടെ അടുത്ത് പോയാണ് സാരി ചുറ്റാറ് അങ്ങനെ ഈ പുതിയ സാരിങ്ങൊണ്ട് ഞാൻ ബിന്ദു ചേച്ചിടെ അടുക്കലേക്ക് പോയി സാരി കണ്ട ബിന്ദു ചേച്ചി അപ്പുറത്തുള്ള പൊന്നു ചേച്ചിനേം മിന്നു ചേച്ചിനേം എല്ലാവരേം വിളിച്ചു സാരി കാണിച്ചുകൊടുത്തു അങ്ങനെ എല്ലാവരും ആ സാരി തൊട്ടും ഒക്കെ നോക്കി ഇഷ്ടായി എന്ന് പറഞ്ഞു നല്ല ഭംഗിയുള്ളൊരു കളർ ആയതുകൊണ്ടതെല്ലാവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ബിന്ദു ചേച്ചി ഇച്ച് ആ സാരി ഉടുത്തുതന്നു അങ്ങനെ ഞാന് ആ സാരി ഉടുത്തു എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോള് എല്ലാവരും എന്നെയല്ല നോക്കിയത് ഞാന് ചിറ്റിയ സാരിയെയാണ് നോക്കിയത് അങ്ങനെ ആ സാരി എവിടെനിന്നാണ് എടുത്തത് എല്ലാവർക്കും അതാണ് അറിയേണ്ടിയിരുന്നത് അങ്ങനെ ആ സാരി എടുത്ത സ്ഥലം പറഞ്ഞു സാരിയുടെ വില ചോദിച്ചു വില പറഞ്ഞപ്പോൾ അവർക്ക് അൽഭുതമായി ഇത് ഇന് ഇത്ര വിലയുള്ളൂ അതായത് അഞ്ഞൂറു രൂപയായിരുന്നു സാരിയുടെ വില പക്ഷേ എല്ലാവർക്കും അതിൻ്റെ വില അതിലേറെയുണ്ട് എന്ന അത്രയ്ക്കും ആ സാരി ഭംഗിയുള്ളതായിരുന്നു അതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ അതേ പ്രിന്റിലും നിറത്തിലുമുള്ളതായതുകൊണ്ടതിനൊന്നുംകൂടിം ഭംഗി കൂട്ടിയിരുന്നു അങ്ങനെ ഞങ്ങള് ആ കല്യാണം കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ച് പോന്നപ്പോൾ ഞങ്ങളുടെ ഉപ്പാന്റൊരു വീട്ടിലും കയറി അങ്ങനെ ആ വീട്ടില് കയറിയപ്പോള് എൻ്റെ ഇത്താത്ത പറഞ്ഞു എന്തോരു ഭംഗിയുള്ള സാരി ഇതെവിടെ നിന്നാണ് ജ്ജ് എടുത്തത് അന്നെ കാണാൻ എന്തൊരു ചൊറുക്കുണ്ട് അങ്ങനെ ആ സാരി ഉടുത്തുപോയ വീട്ടിലൊക്കെ ആ സാരിയെ പറ്റിയായിരുന്നു ഇങ്ങനെ പറഞ്ഞുംകൊണ്ടിരുന്നത് അങ്ങനെ എനിക്കും വളരെ സന്തോഷമായി മനസ്സില് ഇത്ര നല്ല സാരി ചിറ്റിപ്പോവാൻ കഴിഞ്ഞതിൽ അതിലും സന്തോഷം വന്നു മനസ്സിലും നല്ലതായി കാരണം ഏത് ഡ്രസ്സിട്ടാലും ഇത്ര ഭംഗി പറയാറില്ല ഈ സാരി നല്ല കളർഫുളും നല്ല പ്രിന്റും ഒക്കെ നല്ല ഉതിപ്പുള്ളൊരു കളർ ആയതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അത് വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ച് പോന്നു